വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ററർടെയ്ൻമെന്റ് എന്ന നിലയിൽ എന്നും സിനിമയുടെ കാര്യം സിനിമ എന്നും മുൻപന്തിയിൽതന്നെ നിൽക്കുമായിരുന്നു പണ്ടു കാലങ്ങളിലാണെങ്കിൽ സിനിമയാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ലഘുവായി കൊമേർഷ്യൽ ആയി കുടുംബ പാശ്ചാത്തലം നിറഞ്ഞുകൊണ്ടുള്ള സിനിമകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ആ സിനിമയുടെ ബഡ്ജെറ്റ് എന്നു പറയുന്നത് വളരെ ചെറിയ രീതിയിലായിരുന്നു അങ്ങനെയായിരുന്നു പണ്ടു കാലങ്ങളിൽ നമ്മളെ സിനിമ ഉണ്ടായിരുന്നത് അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സിനിമകൾ എന്നു പറയുന്നത് ബിഗ് ബഡ്ജെറ്റ് ചിത്രങ്ങളാണ് അതായത് നമ്മൾ ബോളിവുഡൊക്കെ നോക്കുകയാണെങ്കിൽ ആയിരം കോടി രണ്ടായിരം കോടി എന്ന നിലയിലാണ് ഓരോ ചിത്രങ്ങളും പോയ് കൊണ്ടിരിക്കുന്നത് ഷാറൂഖാൻ എന്നു പറയുന്ന നടൻ്റെയൊക്കെ സിനിമകൾ എന്നു പറയുന്നത് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിൽ വരെ അതിന് ആരാധകരും അതുപോലെ തന്നെ പുറം നാടുകളിൽ അതിന് വലിയ കളക്ഷൻ തന്നെ ആ പട അവരുടെ പടങ്ങൾക്ക് നേടികൊടുക്കാറുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തമിഴിലെ രജനികാന്തിൻ്റെ സിനിമകൾ അങ്ങ് നമ്മൾ പറയുകയാണെങ്കിൽ ആരാധകർ എവിടെ നിന്നുള്ള ആരാധകർ വരെ ആ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളരെ ഇത് സപോർട്ട് ആയിട്ട് കൊണ്ട് തന്നെ വൻ വിജയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് കൈമാറുന്നത് അതുപോലെതന്നെ നമ്മുടെ മലയാളത്തിലെ മോഹലാലിൻ്റെ ലൂസിഫറാകട്ടെ നൂറ് കോടി വരെ നമ്മൾക്ക് കളക്ഷൻ നേടിത്തന്നിട്ടുള്ള സിനിമകളാണ് അതുകൊണ്ടുതന്നെ എക്കാലവും മലയാളികൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നു പറയുന്നത് സിനിമ തന്നെയാണ് സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ വൻ മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഈ ഈ രാജ്യം കൈവന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ തന്നെ വന്നിട്ടുമുണ്ട് അതുപോലെതന്നെ ബഡ്ജറ്റ് വളരെ കൂടി ബഡ്ജെറ്റ് കൂടുതൽ ചെയ്തിട്ട് കൂടുതൽ പണം അവർ പ്രോഫിറ്റ് നേടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വിനോദം തന്നെയാണ് സിനിമ എന്നുപറയുന്നത് അതുപോലെ തന്നെയുള്ള കാര്യമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ വരെ ഈ വേൾഡ് കപ്പ് കാണുകയും ആസ്വദിക്കുകയും കളിയുടെ ആവേശത്തിൽ എല്ലാ എല്ലാവരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിരിക്കാനുള്ളൊരു മനസ്സ് പണ്ടുള്ള അപേക്ഷിച്ച് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഫുട്ബോളിൻ്റെ കാര്യവും ഫുട്ബോൾ വേൾഡ് കപ്പ് എനിക്ക് തോന്നുകാണെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെ ഒരുപാട് കട്ട്ഔട്ടുകൾ വച്ച് അതായത് പിന്നെ അർജെന്റീനയുടെയും അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ റൊണാൾഡോയുടെയും അങ്ങനെ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച് ആവേശം കൊള്ളിച്ചാണ് ഈ കേരളത്തിലെ ആൾക്കാരും അതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലെ ആൾക്കാരും കളി വരുന്ന സമയത്ത് ആവേശപൂർവം കണ്ടിരുന്നത് അതിനു അതുപോലെതന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഗെയിംസ് എന്നു പറയുന്നതും നമ്മുടെ ഇന്ത്യയിൽ വളരെ അധികം ആൾക്കാർ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടും സിനിമയും ഗെയിംസുകളും ഇപ്പോൾ വിനോദകാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്